ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്ന പാരിസ്ഥിത പ്രശ്നങ്ങൾ ഏറെയാണ് ക്ളൈമറ്റ് ചെയ്ഞ്ച് വേനൽക്കാലം ശീതകാലം അങ്ങനെ ഉള്ള മഴ അങ്ങനെ ഉള്ളതൊന്നും കൃത്യ സമയത്തല്ല ഇന്ന് സംഭവിക്കുന്നത് പിന്നെ നമ്മുടെ ചുറ്റുമുള്ള നദികളും കാടുകളും മലകളും കുന്നുകളും കടലുകളും എല്ലാം മലിനമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നശിച്ചു പൊയ്ക്കോണ്ടിരിക്കുകയാണ് നദികളായിക്കോട്ടെ നദികളെല്ലാം തന്നെ പൊലൂട്ടഡ് ആവുകയാണ് അല്ലെങ്കിൽ ആളുകൾ മാലിന്യങ്ങളെല്ലാം നദികളിലേക്ക് വലിച്ചെറിയുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നദികളെല്ലാം നശിച്ചു പൊയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനൊക്കെ കാരണം മനുഷ്യർ തന്നെയാണ് മനുഷ്യൻ്റെ പ്രവൃത്തി തന്നെയാണ് ഇതിനെല്ലാം കാരണമായിട്ട് വരുന്നത് പിന്നെ മലകളായിക്കോട്ടെ മലകളിലെ എല്ലാം മണ്ണുകളും കുന്നുകളിലെ മണ്ണുകളെല്ലാം ഇടിച്ച് നിരപ്പാക്കും അപ്പം ജസ്റ്റ് ചെറിയ ഭാഗത്തെ മണ്ണ് മാന്തുമ്പോൾ തന്നെ ബാക്കി ഉള്ളതെല്ലാം തന്നെ ഇടിഞ്ഞ് പോവും പിന്നെ ഇന്നത്തെക്കാലത്ത് ഒരു മെയിൻ പ്രശ്നമാണ് ഉരുൾപൊട്ടൽ ഉരുള് പൊട്ടി ഐ മീൻ കുറേ കാര്യങ്ങളക്കെ നശിച്ച് പോകുന്നുണ്ട് ഈ അടുത്തുണ്ടായ പ്രളയം പോലും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വന്നത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് കൃഷി ഇടങ്ങൾ ഒട്ടും തന്നെ ഇല്ല പിന്നെ മണ്ണാണെങ്കിലും മലിനമായ മണ്ണാണ് എല്ലായിടത്തും ഉള്ളത് കുന്നുകളും മൽ കാടുകൾ കാടുകൾ തന്നെ ഇപ്പം നാട് നാട് നശി മനുഷ്യൻ നശിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാടുകളും കയ്യേറി മനുഷ്യൻ നശിപ്പിക്കുകയാണ് നമ്മടെ ചുറ്റും അനുഭവിക്കുന്ന വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും ഭക്ഷണം ഇല്ലാത്ത പ്രശ്നങ്ങളും വെയിലിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഇപ്പം ഇന്നത്തെ കാലത്ത് മഴ മഴ പെയ്യേണ്ട കാലത്ത് വെയിലും വെയിലുള്ള സമയത്ത് കൊടും വെയിലും വരൾച്ചയുമെല്ലാം ആണ് നാം അനുഭവിക്കുന്നതും അനുഭവി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ മനുഷ്യൻ തന്നെ ആണ് ഇതിനു കാരണം ഇന്ത്യ അഭിമുഘീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായിരിക്കും വെള്ളം ഇല്ലായ്മ വരൾച്ച ഭയങ്കര ഇതാണ് പിന്നെ മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കത്തിന്റെ കാരണം ഈ മണ്ണ് മാന്തുന്നതും താഴ്ന്ന പ്രദേശത്തിലോക്കെ മലിനമാക്കുന്നതും ഒക്കെ തന്നെയാണ് അപ്പം ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ ക ഇതെല്ലാം എല്ലാവരും അനുഭവിക്കുന്നുണ്ട്

നന്നായിട്ട് മാറിയിട്ടുണ്ട് പണ്ട് കാലത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെക്കാലത്ത് എല്ലാവരും തിരക്കിലാണ് കൃഷി ഇടങ്ങൾ പോലും ഇല്ല കൃഷി ഇടം കൃഷി ചെയ്യാനായിട്ട് ആൾക്കാർക്ക് താല്പര്യവുമില്ല കൃഷി ചെയ്യാനായിട്ട് ആരും മുന്നോട്ട് വരാറുമില്ല അതുകൊണ്ടു തന്നെ എലാവരും അവരുടേതായ രീതി തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോലും വിഷമുണ്ട് അപ്പം പണ്ട് കാലത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും കൃഷി ഇടങ്ങളും എല്ലാമായിട്ട് നന്നായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ കാലത്ത് വെള്ളം വെള്ളം ഒരു പ്രെ വലിയ പ്രശ്നമാണ് മലകളും കുന്നുകളുമെല്ലാം ഇടിച്ച് നീക്കുന്നത് അതിലും വലിയ പ്രശ്നമാണ് കൃഷി ഇടങ്ങൾ എല്ലാം നശിച്ച് പോവുകയാണ് അപ്പം ഭക്ഷണത്തിനും ക്ഷാമം വരുന്നു വെള്ളത്തിന് ക്ഷാമം വരുന്നു ഇതൊക്കെ നമ്മൾ മനുഷ്യനായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങൾ തന്നെയാണ് പിന്നെ വേനൽ കൊടും വേനലിൽ വരണ്ട് കിടക്കുന്ന ഭൂമിയാണ് ഇന്നത്ത് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പം വരൾച്ച വേറെ ഒരു പ്രശ്നം ആണത്